ഞാൻ വരുത്തിക്കൊണ്ടിരിക്കുന്ന പത്രം മനോരമ ആണ് മനോരമ പ്രാദേശികം ആയി ഓരോ എഡിഷനും ഒരു കാലത്തിൻ്റെ പ്രാദേശികമായി ഉള്ള വാർത്തകൾ ആണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തെ സംബന്ധിച്ച് കൂടുതൽ എഴുതാറുണ്ട് അതിൽ സർവ്വേ നടത്തി കൃഷിക്കാരും കുട്ടനാട്ടിലെ കൃഷിക്കാരും തൊഴിലാളികളും എല്ലാവരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അവർ കൂടുതലായിട്ട് വാർത്തയും വാർത്ത ഇടാറുണ്ട് കൂടാതെ സമകാലിക പ്രശ്നങ്ങൾ എല്ലാം രാഷ്ട്രീയമായി മതപരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അത് മനുഷ്യ ജനങ്ങളെ അറിയിക്കുന്നുണ്ട് പിന്നെ പുതിയതായി എന്ന് പറയാൻ ആയിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ അല്ലെങ്കില് പാരമ്പര്യ രോഗങ്ങള് അല്ലെങ്കിൽ പാരമ്പര്യ ജോലികളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വരെ ഉദ്ധരിക്കുവാൻ വേണ്ടിയിട്ട് അവർ സർവ്വേ നടത്തി കൂടുതലായിട്ട് അവര് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് മറ്റ് എല്ലാ മേഖലകളും അവർ കടന്നു ചെല്ലുന്നുണ്ട് എല്ലാ പൊതുവായ എല്ലാ മേഖലകളിലും അവർ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നുണ്ട്